ഹലോ ആ എന്താ ആതിര ഒക്കെ ആ ആ ആ എത്ര റൂമുണ്ട് ഒരു മുറി ആ ആ അപ്പോൾ എങ്ങനെയാ പെയിൻറ് എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് മ് മ് മ് അപ്പോൾ നമുക്ക് എന്തായാലും കളർ പെയിണ്ടുകളാണല്ലോ ഉദ്ദേശിക്കുന്നത് അല്ലേ മ്മ് ആ മ്മ് മ്മ് മ്മ് മ്മ് അ അ ആ അ അ ആ ആ അപ്പോൾ അങ്ങനെ കൂട്ടിയൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ അവിടെ വന്ന് വീടൊക്കെ ഒന്ന് നോക്കട്ടെ എന്നിട്ട് പിന്നെ എത്ര പെയിൻറ് വേണം എങ്ങനെ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിതാക്കാനായിട്ട് അപ്പോൾ ഞാൻ വന്നു നോക്കിയിട്ട് സമയം പോലെ ഞാൻ വന്ന് നോക്കിയിട്ട് ഞാൻ പറയാം ഇല്ലില്ല മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് ആ എൻ്റെ സൗകര്യം പോലെ ഞാൻ വരാം ആ മ് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ആ ഒക്കെ അപ്പോൾ പെയിന്റും കാര്യങ്ങളൊക്കെ എന്തോരം വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഞാൻ കടയിൽ ചെന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ മതിയില്ലേ ടോട്ടൽ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് അപ്പോൾ ഒക്കെ പിന്നെ സുഖമല്ലേ ഒക്കെ ശരി എന്നാൽ